ഞങ്ങളുടെ ഇവിടെ ഒരു പാമ്പുകളുണ്ട് പക്ഷേ പല പാമ്പുകളും ചിലത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന പാമ്പാണ് ചിലത് നമ്മൾ ചവിട്ടിയാലേ കടിക്കുള്ളൂ ചിലത് നമ്മൾ നടന്ന് പോവുമ്പം നമ്മളെ ചാടി പിടിക്കുന്ന പാമ്പുണ്ട് പക്ഷേ പാമ്പ് കടിച്ച് കഴിഞ്ഞാൽ പാമ്പിനെ പാമ്പിനെ ആദ്യമേ തന്നെ ഫസ്റ്റ് എയിഡ് എന്ന് പറഞ്ഞോണം നമ്മൾ കൈയൊക്കെ മോൾ വശത്ത് കെട്ടി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആ ഹോൾ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞിട്ട് ഞെക്കി ചോര കളയുക അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രാഥമിക കാര്യങ്ങൾ പിന്നെ ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വന്നിട്ട് ഉട ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ആ പാമ്പിനേം പിന്നെ തല്ലി മയക്കി കുപ്പിയിലാക്കി കൊണ്ടുപോവുക അതായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ചെന്നെങ്കിൽ എടുത്താൽ അടുത്ത വിഷകാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇവിടുന്ന് ദൂരെയാണ് ഞങ്ങളുടെ ഇവിടെ പിന്നെ വനം നമുക്ക് റബ്ബറും വനം ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം പാമ്പുകളെന്ന് പറഞ്ഞാൽ പലയിനം പാമ്പുകൾ ഈ അണലി ഐറ്റത്തിൽ തന്നെ ഒരുപാടിനം വെറൈറ്റി പാമ്പുകൾ തന്നെ അതുപോലെ മൂർഖൻറേത് പിന്നെ ചട്ടിതലയൻ എന്ന് പറയുന്ന പാമ്പുണ്ട് പിന്നെ വേറെ ഒരുപാട് സൈസ് പാമ്പുണ്ട് പെരിംചാത്തി മലമ്പാമ്പ് അങ്ങനെ ഒരുപാട് സൈസ് പാമ്പുണ്ട് അതുകൊണ്ട് ആ ഓരോ പാമ്പിനും ഒരു പ്രത്യേക സൈസ് ആണ് ആണ് അതിൻ്റെ ആ വിഷത്തിൻ്റെ ആ ഇത് ഏതാണ് ഈ അതുകൊണ്ട് ഒരു പിന്നെ ചെ മുട്ടിന് മേളിലും കാലിലാണ് കടിച്ചിരുന്നതെങ്കിൽ മുട്ടിന് മുകളിലേക്ക് ആ കാലിൻ്റെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി മുറുക്കി വെച്ചിട്ട് ഈ കടിയേറ്റ ഭാഗം ചെറിയ ഇതായി ഒരു മുറിവിൻ്റെ ആഴം കൂട്ടിയിട്ട് അതിലേക്ക് അതിൽ നിന്നും ബ്ലഡ്ഡ് ചെ ഞെക്കി കളഞ്ഞിട്ട് പ്രാഥമികമായിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്